പൂജാരിയല്ലേ എൻ്റെ മോളുടെ കല്യാണമായിരുന്നെ അതിനൊന്ന് മുഹൂർത്തം കുറിക്കാനായിരുന്നു വിളിച്ചത് കല്യാണം വരുന്ന മാസം പത്താം തീയതി ആയിരുന്നു കല്യാണവെ അപ്പം ജാതകം ജാതകം നോക്കിയിട്ടില്ല ജാതകം നോക്കണം പിന്നെ അതിൻ്റെ പൊരുത്തം എത്രയുണ്ട് ഇങ്ങനെ പത്ത് എട്ട് പത്തിൽ ഒമ്പത് എന്നൊക്കെ എങ്ങനെയാണ് നോക്കണം അപ്പാൾ ഹലോ അപ്പം റിസെപ്ഷൻ റിസെപ്ഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ ഫുഡ്ഡ് ഒക്കെ നോൺ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ എങ്ങനെയാ അവിടെ വെച്ച് നടത്താൻ പറ്റുമോ വീട്ടിൽ ആണല്ലേ അപ്പോൾ ആ ദിവസം പറ്റത്തില്ലായിരിക്കും വീട്ടിൽ ആ ആ ദിവസം പറ്റത്തില്ലായിരിക്കും അല്ലേ ആ പിന്നെ എങ്ങനെയാ എന്നാ ഞങ്ങളൊന്ന് പൂജാരിയെ ഒന്ന് ഏത് ദിവസം വരണം അടുത്ത ഞായറാഴ്ച സമയം ആ അഹ് അഹ് അഹ് ഓക്കേ ആ അല്ല ഞാൻ വരേണ്ട സമയം എപ്പോഴാ എന്ന് പറയുവായിരുന്നെങ്കിൽ ശരി മതി ആ ആ ഓക്കേ ഓക്കേ ആ പിന്നെ ഫോട്ടോ എന്തെങ്കിലും കൊണ്ട് വരണോ അഹ് അഹ് ആ അഹ് പിന്നെ പൈസ എത്രയാ ഇത് നോക്കുന്നതിന് അഹ് അന്നേരം വന്ന് പറഞ്ഞ് തരുമല്ലേ നോക്കിയിട്ട് ആ ആ പിന്നെ മുഹൂർത്തവും നോക്കണം പൂജാരി വരുമ്പളേ ജാതകവും അവിടെ ഗുരുവായൂർ വെച്ച് ഗുരുവായൂർ നടത്താനാണ് സമയം ഒന്ന് കുറിക്കണം എപ്പളാ ആ പൂജാരി വന്നാൽ മതി ആ അപ്പം സമയം നോക്കി പറയണം എപ്പളാണ് എന്നുള്ളത് പൂജാരിക്ക് സമയം എങ്ങനെയാണ് ഉള്ളതെന്ന് ആയിരുന്നു ആ എന്നാലും ഒന്ന് നോക്കണം കേട്ടോ തിരക്കില്ലാത്ത ഒരു സമയം നോക്കിയേ ആ ആ ആ കല്യാണം ഇച്ചിരി ദൂരെ ആയിപ്പോയി അതുകൊണ്ട് ആ ജാതകം കൊണ്ടുവരാം കല്യാണം ഇത്തിരി ആയിപ്പോയി അതുകൊണ്ടാണ് പറയാൻ താമസിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് ആ കല്യാണം കഴിഞ്ഞിട്ട് പൊറത്തോട്ട് പോവാനുള്ളതാണെ അതുകൊണ്ടാ എത്രയും പെട്ടന്ന് ഒന്ന് അറിയിക്കണം ആ ആ വേറെ തടസ്സം ഒന്നും വരത്തില്ലായിരിക്കും അല്ലേ അതിൻ്റെ ഇടയ്ക്ക് ആ ജാതകം ചേർന്നില്ലെങ്കിൽ എന്നാ ചെയ്യും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ

ആ എന്നാലും നല്ലപോലെ ഒന്ന് നോക്കുവേ ആ ആ എന്നാൽ ഓക്കേ ശരി